ഹലോ ജോസേട്ടനാണല്ലേ ആ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പറഞ്ഞിട്ട് വിളിക്കുവായിരുന്നേ ഞാൻ കുറച്ചു നാളായിട്ടിവിടില്ലായിരുന്നു അപ്പെനിക്ക് നാട്ടി ചുങ്കപ്പാറ സൈഡിൽ നല്ലൊരു വീടോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാനായിട്ട് കുറച്ചു സ്ഥലമോ ജോസേട്ടൻ വിചാരിച്ചാൽ നടക്കുമെന്നു പറയുന്നതു കേട്ടു അപ്പം അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാനായിട്ട് ആ നമുക്കെന്തായാലും നമ്മുടെ ഒരു റേഞ്ചിൽ നിൽക്കണം ഒരു മുപ്പത് ലക്ഷം താഴെ താഴെ ഒരു വീടും സ്ഥലവും കൂടി കിട്ടുകയാണെങ്കിലതായിരിക്കും നല്ലത് ആ ആ റോഡ് സൈഡായിരിക്കും സൗകര്യം കാരണം പ്രായമായവരും ഒക്കെ വ വീട്ടിലോട്ടൊന്നു വന്നു കയറണമെന്നുണ്ടെങ്കിലേ വണ്ടി സൗകര്യമില്ലെങ്കിൽ നമുക്ക് പാടായിരിക്കുമല്ലോ വണ്ടി ചെ ആ വണ്ടി ചെന്നു കയറുന്ന വഴിയായിരിക്കണം ആ കുറച്ച് പിന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് കാല് നമ്മുടെ ഫല വൃക്ഷങ്ങളൊക്കെ ഉള്ളതു കൂറ്റിയാണെങ്കിലെ നമുക്കൊരു തേങ്ങയോ മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് സൗകര്യമായിരിക്കും അല്ലെങ്കിൽപ്പിന്നെല്ലാം വീ വാങ്ങിക്കേണ്ടി വരികയില്ലെ

ആ പക്ഷെ ഇത് കുറച്ചു കൂടി ലോക്കൽ ഏരിയയല്ലേ അധികം പബ്ലിസി എന്നാ പബ്ലിക്കല്ലല്ലോ കുറച്ചു കൂടി ഉള്ളിലോട്ടു കയറിയ പ്രദേശമായതു കൊണ്ട് വീടും സ്ഥലവുമായിട്ട് കിട്ടുകയില്ല ആ വീടിൻ്റെ സൗകര്യം അത്രയും മതി പക്ഷെ നമുക്ക് റോഡ് സൈഡ് കിട്ടണം റോഡ് സൈഡ് കിട്ടണം പിന്നിവിടൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടാണെന്നറിഞ്ഞ് അപ്പം നമുക്കൊരു കിണർ കുഴിച്ചാൽ വെള്ളം വേണം അല്ലെങ്കിലൊരു വാ ബെറ്റ് ആ ഇവിടുത്തെ സാഹചര്യമനുസരിച്ചേ ആ പൈപ്പ് ലൈൻ കുഴപ്പമില്ല നമുക്ക് വെള്ളം കിട്ടണം വർഷത്തിലെല്ലാ ദിവസവും വെള്ളം കിട്ടണം വെള്ളം അല്ലാതേ ടാങ്കിൽ അടിക്കണ്ടൊരവസ്ഥ വരരുത് കുടിവെള്ള പ്രശ്നം ആ ആ ആ നമുക്ക് അല്ലാതെ ടാങ്കിൽ ലോറിയിൽ വെള്ളമടിക്കേണ്ടൊരവസ്ഥ വരരുത് നമുക്ക് ദെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസോം വെള്ളം വേണം അത്യാവശ്യം റോഡ് സൈഡാണെങ്കിൽ സൗകര്യമായിരിക്കും പക്ഷെ മുപ്പത് ലക്ഷത്തിനപ്പുറം പോകാനായിട്ട് നമുക്കൊരു റേയ്ഞ്ചില്ല അതിനുള്ളിൽ നിൽക്കണം ആ നാളെ ഞാൻ ഫ്രീ ആയിരിക്കത്തില്ല ചേട്ടാ ഒരു രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് ആ വിളിച്ചാൽ മതി വിളിച്ചാൽ മതി ആ വിളിച്ചാൽ മതിയല്ലേ ആ ഓക്കെ ഓക്കെ ഇപ്പം വീടും സ്ഥലം കൂടിയുള്ളതു കൊണ്ടോ ചേട്ടൻ്റെ പരിചയത്തിലുണ്ടോ ഉം ആ ഓക്കെ അത്യാവശ്യം അത്യാവശ്യം സൗകര്യം ഒക്കെ ഉണ്ടല്ലോ അല്ലേ ആ ഈ ഏരിയ എങ്ങനെയുണ്ട് ഈ ഏരിയയെ ചുങ്കപ്പാറയെന്നു പറഞ്ഞ ഈ ഈ കാടിൻ്റെ സൈഡൊക്കെയാണെന്നു പറയുന്നതു കേട്ടു അപ്പം വല്ലതും കാട്ടു മൃഗങ്ങളുടെ ശല്യമോ അങ്ങനെ വല്ലതും ഉണ്ടാകുമോ

ആ ശരിയെന്നാൽ ആ ശരിയെന്നാൽ ഉം ബൈ